നമ്മുടെ രാജ്യത്ത് ഇന്ന് രണ്ട് രീതിയിലുള്ള മെഡിക്കൽ സേവനങ്ങളാണ് ലഭിക്കുന്നത് ഒന്ന് ഗവൺമെൻറ് മെഡിക്കൽ സേവനങ്ങളും ആശുപത്രികളും മറ്റൊന്ന് പ്രൈവറ്റ് ആശുപത്രികളും പ്രൈവറ്റ് മെഡിക്കൽ സേവനങ്ങളുമാണ് ഉള്ളത് അതിൽ പ്രൈവറ്റ് മെഡിക്കൽ സേവനങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവാക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് എന്നാൽ അവരുടെ സർവീസ് നല്ല ക്വാളിറ്റി ഉള്ളതും ആണ് എന്നാൽ ഗവൺമെൻറ് മെഡിക്കൽ സേവനങ്ങളിൽ പൈസ കുറവാണ് വില താങ്ങാവുന്നതാണ് എങ്കിലും എപ്പോഴും വേണ്ട രീതിയിലോ വേണ്ട വേഗത്തിലോ സേവനങ്ങൾ ലഭിച്ചു എന്ന് വരില്ല ഇവിടുത്തെ ചിലവുകൾ ഗവൺമെൻറ് ആ മെഡിക്കൽ സേവനങ്ങളുടെ ചിലവുകൾ താങ്ങാവുന്നതാണ് എന്തുകൊണ്ടും മികച്ചതാണ് മുമ്പത്തതിനെക്കാൾ മികച്ചതാണെങ്കിലും ഒരുപാടിനിയും വളരാനുള്ള ഒന്നാണ് ഗവൺമെൻറ് മെഡിക്കൽ സേവനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രികൾ ഇനി പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ചിലവ് താങ്ങാവുന്നതിനെക്കാളും കൂടുതലാണ് എന്നിരുന്നാലും ഏറ്റവും മികച്ച സേവനം തന്നെയാണ് അവിടെയുള്ളത് ഏറ്റവും പുതിയതായി ഇറങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അവിടെ ചികിത്സയും സേവനങ്ങളും നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും മികച്ച സൗകര്യം തന്നെയാണ് ഉള്ളത് കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പോലെ അത് ഞങ്ങളേയും ബാധിച്ചിരുന്നു എൻ്റെ വീട്ടിലുള്ള എൻ്റെ അച്ഛനും അമ്മയും മെഡിക്കൽ പ്രവർത്തകരായത് കൊണ്ട് തന്നെ അവർക്കതിന്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഞങ്ങളേയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു എന്നിരുന്നാലും അധികം ബുദ്ധിമുട്ടുകളില്ലാതെ ആ കോവിഡ് സമയം കടന്ന് പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പ്രദേശത്തെ ഏറ്റവും മികച്ച ആരോഗ്യപരിരക്ഷ ലഭിക്കുന്നതിന് ഏറ്റവും അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജുണ്ട് അത് മാത്രമല്ല അവിടെ പബ്ലിക് ഹെൽത്ത് സെക്ടർസ് അവിടെ അടുത്ത് തന്നെ ഉണ്ട് കൂടെ ആശാപ്രവർത്തകരും ഒപ്പം ഉണ്ട്